ഹലോ അതെ ആര് ആയിരുന്നു ആ അതെ അതെ ആ ഓക്കെ ആ അപ്പം ഏ ആർക്കെങ്കിലും വീട്ടിൻ്റെ അടുത്ത് ആർക്കെങ്കിലും ഉണ്ടോ അതോ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മഴ നനഞ്ഞായിരുന്നോ ആ ആ അപ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചായിരുന്നോ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ

ആ അതിൽ കാര്യമില്ല നമ്മൾ ഇപ്പോളത്തെ കാലത്തു എല്ലാവർക്കും കൊറോണ ആണ് അപ്പോൾ മാസ്ക് നിർബന്ധമാണ് മാസ്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ കൊറോണ ആകാം

ആ ഓ പറ്റും പറ്റും പിന്നെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളത് ആണ് അല്ലെ വേദന ഉണ്ട് അല്ലെ മേലു വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ ആ അപ്പം ആരും ആയിട്ടും അങ്ങനെ ഇടപഴകാതിരിക്കുക മാക്സിമം നമ്മളും ആയിട്ട് ടച്ച് ചെയ്യാതെ ആരും ആയിട്ട് മാക്സിമം അവരുവായിട്ടു അകലം പാലിക്കണം പിന്നെ നിങ്ങള് കഴിക്കുന്ന ആ ഒക്കെ നല്ല കാര്യമാണ് അപ്പം മാക്സിമം അത് നോക്കുക പിന്നെ അതായത് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് ആർക്കും കൊടുക്കാൻ പാടില്ല പിന്നെ അവരടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന വരെ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ വേറെ എവിടെയും എന്തായാലും ഇറങ്ങാൻ പാടില്ല അത് ചെറിയ കുട്ടികൾ ഒക്കെ ഉള്ളത് അല്ലെ അവർക്ക് നമുക്ക് ഉള്ള ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ഉണ്ടായി എന്ന് വരില്ല അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നല്ലതുപോലെ ഭക്ഷണം കഴിക്കുക ജസ്റ്റ് നമ്മള് ഇപ്പോൾ അതായത് ഹോസ്പിറ്റലില് നിങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടും കാര്യം നമ്മള് ഇപ്പം തരുന്ന മരുന്ന് ഇല്ലല്ലോ പാരസെറ്റമോൾ തരാൻ പറ്റുകയുള്ളു അപ്പോൾ നിങ്ങള് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഇങ്ങോട്ടേക്ക് ഒന്ന് വരിക ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആണ് എന്ന് വെച്ചാൽ ഓക്കേ ആ ഓക്കേ ഓക്കേ